എനിക്ക് കൂടുതലും ഉത്തമമായി തോന്നിയത് ഇൻറർനെറ്റ് വഴിയുള്ള ബാങ്കിങ് തന്നെയാണ് ഇപ്പം ഇൻറർനെറ്റിൻറെ വരവോടു കൂടി ബാങ്കിങ് മേഖലയിലും ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ചു ഇപ്പം ഗൂഗിൾ പേ എ ടി എം എന്നുള്ള ഓരോ വഴികളും നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ തിരക്ക് പിടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്നു തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം നമുക്ക് ഇപ്പം മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ഇപ്പം പൈസ ഇട്ട് കൊടുക്കണം എങ്കിലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പൈസ ആവശ്യം വന്നാൽ ആരോടെങ്കിലും ചോദിച്ച് പെട്ടെന്നു തന്നെ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു അതുകൊണ്ടു തന്നെ നമുക്ക് ബാങ്കിൽ പോയി ക്യു നിന്ന് ഓരോന്ന് എഴുതികൊടുത്ത് വാങ്ങേണ്ട ഓരോ പ്രവർത്തനം ഓരോ പ്രവർത്തനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് അങ്ങാട്ടുമിങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ അതുപോലെ എ ടി എം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ പോയിട്ട് ക്യൂ നിന്നിട്ട് വേണം പൈസ ഇങ്ങോട്ടേക്ക് ഡെപ്പോ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും വിഡ്രോ ചെയ്യണമെങ്കിലും അപ്പം നമുക്ക് എ ടി എം വഴി നമുക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ ഇൻറർനെറ്റ് വഴിയിലുള്ള ബാങ്കിംഗ് ഇപ്പോൾ ഒരുപാടാൾക്കാർക്ക് എളുപ്പാ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പം രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് പൈസ അയച്ചുകൊടുക്കാനും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യത്തിൽ ഒരു നല്ല എളുപ്പമുള്ള ഒരു വഴിയാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഇൻറർനെറ്റിലൂടെയുള്ള ബാങ്കിങ് പിന്നെ അതുപോലെ ഇപ്പ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് ബേങ്കിൽ പോകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലതന്നെ നമുക്കിപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഇപ്പം കൈയിൽ വെച്ച് പൈസ വെച്ച് നടക്കുമ്പം നമുക്കത് ഒരു ഇപ്പം വീണുപോകുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റുമെന്നൊക്കെ എന്നുള്ള ഒരു പേടി വേണ്ട ഇപ്പം ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് സാധനം വാങ്ങുമ്പോൾ അതിന് ക്യാഷ് ആയിട്ട് ഗൂഗിൾ പേയിലൂടെ അയച്ചുകൊടുത്താൽ മതി അതുകൊണ്ട് അത് ഒരു സുരക്ഷിതമായ മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ ഇൻറർനെറ്റിലൂടെയുള്ള ബാങ്കിംഗ് ആണെങ്കിലും സുരക്ഷിതമായ ബേങ്കിങ്ങാണ് അതുകൊണ്ട് തന്നെ എറ്റവും ഉത്തമമായത് ഇൻറർനെറ്റിലൂടെയുള്ള ബാങ്കിങ് തന്നെയാണ്